ആ എൻ്റെ പേര് ഉഡിഷിറ ഞാൻ ഇവിടെ കോഴിക്കോട് താമരശ്ശേരീന്നാണേ വിളിക്കുന്നത് ഞാനേ എൻ്റെ വെഡിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടീട്ടായിരുന്നേ അതിനുള്ള അറേഞ്ച്മെന്റിന് വേണ്ടീട്ടായിരുന്നേ ആ ഫോ ആ അങ്ങനെയുള്ളതിനു വേണ്ടീട്ടായിരുന്നു അഹാൻ ഈ ഇരുപ ഇരുപതാം തീയതി വേണ്ടീട്ടാണ് ഇരുപത്തഞ്ച് ഓ സോറി ആ ഇരുപത്തഞ്ചാം തീയതിക്ക് വേണ്ടീട്ടായിരുന്നു എൻഗേജ്മെന്റ് പതിനഞ്ചാം തീയതിക്കാണേ ആ പിക്കെടുക്കണം അതിന് മുമ്പ് എടുക്കാനെ ഒരു പതിമൂന്നിന് പന്ത്രണ്ടിനൊക്കെ എടുക്കാൻ വേണ്ടീട്ടായിരുന്നു ആ നിങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും

ആ നമ്മുടെ ഇവിടെ വന്നിട്ട് എട് എടുക്ക് എടുത്താലും മതി അങ്ങനെയാണെങ്കിൽ ആ ആഹാ ആ എമൗണ്ടക്കെ എത്രയാണ് വരുന്നത് വീഡിയോസിന് ഒക്കെ ചെയ്യാണെങ്കിൽ വീഡിയോസും ഫോട്ടോസും രണ്ടൂടെ കൂടിയാണല്ലേ അപ്പോൾ വീഡിയോസില്ലാണ്ട് ഫോട്ടോസ് മാത്രം ആണെങ്കിലോ ആ ആ ആ

ആ ഓക്കെ ഓക്കെ

ആ ആ നമുക്ക് ചേ നോക്കാം

അങ്ങനെയായിട്ട് ഒന്നുല്ല്യാ എങ്കിൽ ആ പതിനഞ്ചാം തീയതി മോർണിങ്ങ് വരില്ലേ നിങ്ങൾ ആ ഓക്കെ ഓക്കെ ആ അങ്ങനെ ചെയ്താൽ മതി ആ ഇട്ടരാട്ടോ

ആ അതിനനുസരിച്ച് ചെയ്യാം ആ ആ ആ ഞാനേ ആലോചിച്ചിട്ട് വിളിച്ച് പറയാവേ ഓക്കെ ശരി